ഗതാഗത സൗകര്യം ഇപ്പോൾ റോഡുകളൊക്കെ നല്ല രീതീയിലുള്ള റോഡുകളൊക്കെയാകുമ്പോൾ നമുക്ക് ഗതാഗത സൗകര്യം എളുപ്പമാണ് റോഡുകളൊക്കെയുണ്ട് ഗട്ടറൊക്കെയാണെന്നേയുള്ളൂ അതിപ്പോൾ രണ്ട് വർഷം മൂന്ന് വർഷമൊക്കെ കഴിഞ്ഞ് ടാറിട്ട് കഴിഞ്ഞാൽ ഗട്ടറ് പൊതുവേ ഗട്ടറാകുമല്ലോ ഇപ്പോൾ ഗതാഗത മാർഗ്ഗമുണ്ട് നമുക്കിപ്പോൾ ഹോസ്പിറ്റലിലേക്ക് പെട്ടെന്ന് ഒരു അസുഖം വന്നാൽ ഒരു ഓട്ടോറിക്ഷയോ ഒരു ജീപ്പോ അല്ലെങ്കിൽ കാറോ വിളിച്ച് നമുക്ക് ചെല്ലാം വേണമെങ്കിൽ ആംബുലൻസും വിളിക്കാം പക്ഷെ നമുക്ക് ഹോസ്പിറ്റലെത്തിയിട്ട് നമുക്കൊരു ആ ഒര് ഒരു ആക്സിഡന്റ് കേസ് വന്നുവെന്ന് വിചാരിച്ചോ നമുക്ക് അത്യന്തം ഇതായിട്ട് നമുക്ക് വേറൊരു സ്ഥലത്തേക്ക് മാറ്റണമെങ്കിൽ നമുക്ക് ഹോസ്പിറ്റലുകളില് ഒന്നിലധികം ആംബുലൻസ് സൗകര്യം വേണം ഡ്രൈവർ വേണം കംപ്ലൈൻറ് അല്ലാത്ത വണ്ടി ആയിരിക്കണം അപ്പോൾ അങ്ങനെ ആണെങ്കിൽ നമുക്ക് ഒരു ജീവൻ രക്ഷിക്കാൻ പറ്റും നമുക്ക് ഇവിടെ അടുത്തടുത്ത് ചെറിയ ചെറിയ പിന്നെ മെഡിക്കൽ സെൻ്ററുകൾ ഉണ്ട് ഡോക്ടർ പരിശോധനക്ക് വരും പക്ഷെ ഒരു പെട്ടെന്നൊരസുഖം നമുക്ക് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് മെഡിക്കൽ കോളേജ് മെഡിക്കൽ കോളേജിലേക്ക് തന്നെ കൊണ്ട് പോകണം അപ്പോൾ നമുക്ക് കുറച്ച് അറിയാമല്ലോ മെഡിക്കൽ കോളേജ് എവിടെയാണെന്ന് അപ്പോൾ നമുക്ക് അവിടെ വരെ എത്താനുള്ള ഒരിത് ഒരു ഒരു മണിക്കൂർ അല്ലെങ്കിലരമണിക്കൂർ ഒക്കെ നല്ലൊരു ആംബുലൻസ് സൗകര്യമുണ്ടെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ വേഗമെത്താൻ പറ്റും പിന്നെ നമുക്ക് ഒരു അര മണിക്കൂർ ഒരു മണിക്കൂർ ഒക്കെയാണ് നമുക്ക് വേഗം എത്താം നമുക്ക് നല്ല നല്ല ഹോസ്പിറ്റലുകൾ അടുത്തടുത്ത് ഉണ്ട് മെഡിക്കൽ കോളേജിൽ തന്നെ നമുക്ക് കൊണ്ട് പോകാൻ പറ്റും പക്ഷെ സൗകര്യം വണ്ടിയുടെ വണ്ടിയില്ലാത്തവർക്കാണ് ബുദ്ധിമുട്ട് വണ്ടിയുള്ളവരാണെങ്കിൽ കുഴപ്പമില്ല ഓട്ടോറിക്ഷ വിളിച്ചിട്ടാണെങ്കിലും നമ്മൾ കൊണ്ട് വരണ്ട് കൊണ്ട് വരാറുണ്ട് അപ്പോൾ ഗതാഗതത്തിന് വലിയ അഭാവം നമുക്കില്ല നല്ല രീതിയിൽ തന്നെ എത്തുന്നുണ്ട്